ക്രിക്കറ്റ് പ്രേമികളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും ഒരു നാടാണ് എന്ന് തന്നെ പറയാം ഞങ്ങൾ എൻ്റെ സ്വന്തം നാട് അവിടെ നിന്നും ദേശീയതലത്തിൽ അല്ലെങ്കില് അന്തർദേശീയ തലത്തിൽ ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായി സമ്മാനങ്ങള് വാങ്ങിയ ആൾക്കാരാണ് ടീമുകളുണ്ട് ഇവിടെ ഫുട് ബോള് പ്രാക്റ്റീസ് ചെയ്യാനും ക്രിക്കറ്റ് പ്രാക്റ്റീസ് ചെയ്യാനുമായിട്ട് സ്റ്റേഡിയങ്ങള് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്താണ് ഫുട് ബോൾ പ്രേമികൾക്ക് അല്ലെങ്കില് ക്രിക്കറ്റ് പ്രേമികൾക്കതൊരു പ്രചോദനമായിട്ട് തന്നെ മാറുക അവരുടെ എല്ലാ മത്സരങ്ങൾക്കും കൂടെ നിൽക്കാൻ ഒരു നല്ല സംഘടനകളും കാര്യങ്ങളും എല്ലാം തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട്